ഞാൻ അങ്ങനെ ഉള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പ്ല സ്ടുവിന് പഠിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഇതാക്കിയത് പെൻസിൽ ഡ്രോയിങ്ങിനാണ് ഞാൻ പോയി പങ്കെടുത്തത് അപ്പോൾ നമ്മൾ പോയത് നമ്മളെ സ്കൂളിൽ നിന്ന് മൂന്നാല് പേരുമായിട്ടാണ് അപ്പോൾ ഓരോ ഇതിലും ഓരോ ടീമിനെ ആയിരുന്നു കാർട്ടൂൺ വരക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ടീമ് പിന്നെ കളർ അതായത് വാട്ടർ കളർ അങ്ങനത്തെ ഓയിൽ പേസ്റ്റ് അങ്ങനത്തെ കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടീം പെൻസിൽ ഡ്രോയിങ്ങിന് അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ നമ്മൾ വേറെ സ്കൂളിലാണ് പോയിരുന്നത് അവിടെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു അത് അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചെന്നു വരച്ചു അതിൽ വലിയ കാര്യമായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല അപ്പോൾ അതൊരു പോരായ്മ ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല അതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അവിടെ ചെന്ന് ഇത്രയും പേർക്കിടെ കൂടി അത് ഒരു ചിത്രമൊക്കെ വരക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഇപ്പോഴും വിചാരിക്കുന്നു അപ്പം അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കും പറ്റിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് ഇതായിരുന്നു പോയിരുന്നു